ഇപ്പോൾ ഞാനൊക്കെ പുസ്തകമൊക്കെ വാങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ നിന്നാണ് അപ്പോൾ കടകളിൽ പല സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ ജംഗിൾ ബുക്സ് അങ്ങനത്തെ ഓരോ മൂർത്തി അങ്ങനത്തെ കുറേ ബുക്സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇഷ്ട്ം പോലെ ഉണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടും മൂർത്തിയിൽ നിന്നാണ് വാങ്ങുന്നത് അവിടെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ജംഗിൾ ബുക്സിൽ നിന്നും വാങ്ങാറുണ്ട് അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ പുതിയ തരം ബുക്കുകൾ ഒക്കെ ആണ് പഴയ ഒരു ടൈപ്പ് ബുക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം പുതിയ ടൈപ്പ് ബുക്കുകളൊക്കെയാണ് അതിന് അവിടെ വരുന്നത് അപ്പോൾ നല്ല അതായത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബുക്കുകളും പിന്നെ വായിക്കാനുള്ള ബുക്കുകൾ നമുക്കിപ്പം ഏതെങ്കിലൊരു ഇപ്പോൾ രാമായണം ഒക്കെ വായിക്കണേ രാമായണം പഴയ രീതിയിലുള്ള രാമായണവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ വലിയകുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ വിലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വില കുറച്ചൊക്കെയാണ് അവിടെ നിന്ന് വിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് വലിയ കുഴപ്പമൊന്നില്ലാത്ത രീതിയിൽ വിൽക്കുന്നുണ്ട് നമുക്ക് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ആവില്ല പിന്നെ സെക്കൻ്റ് ഹേൻ്റ് പുസ്തകങ്ങൾ അങ്ങനെ കിട്ടുന്ന കടകളൊന്നും വലിയ രീതിയിലില്ല ഞാ ഉണ്ടാകും പഷെ ഞാനങ്ങനെ സെക്കൻ്റ് ഹേൻ്റ് ബുക്കൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയില്ല